ആ അതെ

ആ ആ ഉണ്ടല്ലോ ആ ഉണ്ടല്ലോ വീടുണ്ടല്ലോ നിങ്ങൾ ഒറ്റയ്ക്കാണോ അതോ വേറെ ഇതുണ്ടോ

ആ ആ ഒരു ബെഡ്റൂം ഒരു കിച്ചൺ ബാത്ത്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം ഒക്കെ ഉള്ള ഒരു വീടുണ്ട് ആ റെന്റ് മാസം മാസം ഒരു രണ്ടായിരം ആ റേറ്റ് കുറച്ചുകൂടെ കുറയ്ക്കാനോ ഒരു എന്നാൽ ഒരു അഞ്ഞൂറ് രൂപ കുറയ്ക്ക ഒരു ആയിരത്തി അഞ്ഞൂറിന് മാസം അത് പറ്റില്ലേ നിങ്ങൾ രണ്ട് പേർ ആവുമ്പം ആ ആ ആ രണ്ട് പേർ ആവുമ്പോഴത്തേന് ഷേയർ ഇട്ട് ചെയ്യാമല്ലോ ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് ആ ഒരു ഒരു ഒരു മണിക്കൂർ ഒരു ഒരു കിലോമീറ്ററിന്റെ ഒരു വ്യത്യാസം അത് നടന്നാണെങ്കിലും ആ നടന്നാണെങ്കിലും നിങ്ങൾക്ക് ഓ കോളേജിലോട്ട് പോവാം എന്നതിലോ ആ ആ ഇവിടെ അടുത്തൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല മറ്റേ ഇതൊന്നുമില്ല എല്ലാം നല്ല ആള്ക്കാരൊക്കെയാണ് അടുത്തൊക്കെ ഉള്ളത് ഇപ്പം നിങ്ങൾക്ക് അടുത്ത് തന്നെ കടകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ആണെങ്കിലും തൊട്ടടുത്തൊക്കെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കടകളൊക്കെ ഉണ്ട് പിന്നെ ആ എങ്ങനെയാണ് എടാ ആ അപ്പം ആ അപ്പം രണ്ട് പേര്ക്ക് ആയിട്ടില്ലേ ആ ആ നിനക്ക് തരാമല്ലോ ആ ആ ആ അടുത്തത് ഉണ്ട് നമുക്ക് ചെയ്യാം

ആ റേറ്റോ അതാവുമ്പം കുറച്ച് കൂടുതൽ റേറ്റ് ആകുവായിരിക്കും ഒരൂ ആ ആ കുറച്ച് മൂവാ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ റേഞ്ച് ഒക്കെ വരുമായിരിക്കും

ആ എന്തെങ്കിലും പ്രൂഫ് തന് തരണം

ആ ഇല്ല ഇല്ല ഇല്ല വേണ്ട വേണ്ട ആ കടകളൊക്കെ ഉണ്ട് നിങ്ങൾക്കിപ്പം കോളേജിന്റെ ആവുമ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനൊക്കെ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കാനുള്ള എല്ലാം എല്ലാ കാര്യങ്ങളും ഉണ്ട് അടുത്തൊക്കെ ആ അത്യാവശ്യം ഒരു ക്ലിനിക്ക് ഉണ്ട് ആ ചെറിയൊരു ക്ലിനിക്ക് ഒക്കെ ഉണ്ട്